മാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രാവർത്തികമാക്കുന്നുണ്ടെന്നും ജനങ്ങളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നില്ല കാരണം അവർ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രാവർത്തികമാക്കുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മുടെ വിവരങ്ങളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്നുമില്ല ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇന്ന് റേറ്റിങ്ങ് കൂടാൻ വേണ്ടി അവരവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഒരു എന്താണ് ഒരു ഒരു വ്യക്തിയെന്ന നിലയിലുള്ള ആ ഒരു പരിഗണനയും മാധ്യമങ്ങൾ കൊടുക്കാറില്ല സ്വന്തം താല്പര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും ആണവർ മുൻതൂക്കം കൊടുക്കുക അതുകൊണ്ട് ഞാൻ ഈ ഒരു സെൻറൻസിനോട് അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണത്തിൽ ഞാൻ അവരുടെ ഓരോ സ്വകാര്യതയും അവർ കാത്തുസൂക്ഷിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് ആദ്യം ആരുടെ വാർത്ത അല്ലെങ്കിൽ ഏത് വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ഏത് ചാനലിലാണ് എൻ ഞങ്ങളുടെ ചാനലിന് എന്ത് മാത്രം റേറ്റിങ്ങ് കിട്ടും എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക അല്ലാതെ ഒരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് ഇറങ്ങി ചെന്ന് എന്തും വിളിച്ച് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല സ്വന്തം താല്പര്യങ്ങളും മാത്രം നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്ന് ചെല്ലുന്ന ഒരു മാധ്യമ പ്രവൃത്തിയെയും യഥാർത്ഥത്തിലൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തനം അതങ്ങനെ അല്ല എന്നെനിക്ക് പറയേണ്ടി വരും മറ്റുള്ളവൻ്റെ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ കണ്ണുകൾ തിരിച്ച് വച്ച് അതിലേക്ക് അവിടെ എന്താണ് പ്രശ്നമെന്ന് നോക്കി അതിൽ കൂടുതൽ റേറ്റിങ്ങ് കിട്ടാൻ വല്ല ചാൻസുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കുറേ മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റും ഇന്നുള്ളത് ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടേക്ക് ഓടി വന്ന് അവിടുത്തെ പ്രശ്നം ആ ഒരു പ്രശ്നം രഹസ്യം ആണെങ്കിൽ പോലും അത് മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നത്തെ കാലത്ത് ഈ മാധ്യമങ്ങൾ ആണ് പല പ്രശ്നങ്ങൾക്കും യഥാർത്ഥത്തിൽ കാരണമെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം നമുക്ക് ഉദാഹരണത്തിന് ഏത് ഏതൊരു പ്രശ്നമെടുത്താലും ആ പ്രശ്നം ആ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത് ഒരുപക്ഷേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ രാഷ്ട്രീയമായും സാമൂഹ്യമായുമുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് പണ്ടൊക്കെ ഈ പ്രശ്നനങ്ങൾ ഒരുപക്ഷേ നമ്മളാരും കാണാതെ അല്ലെങ്കിൽ അറിയാതെ പോകുമായിരുന്നു പക്ഷേ ഇന്ന് ഏത് പ്രശ്നവും മാധ്യമ ശ്രദ്ധ പുലർത്തുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അവർ അതിനെ വളച്ചൊടിച്ച് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് കാരണം കണ്ടെത്താതെ എന്തൊക്കെയോ കാട്ടികൂട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്ന് പോകുക അത് മറ്റുള്ളവർക്ക് എന്ത് മാത്രം വേദന ഉണ്ടാക്കുന്നുവെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അത് കൂടുതൽ വഷളാക്കുന്നു എന്നും അവർ അത് മനസ്സിലാക്കുന്നില്ല പകരം എനിക്ക് എന്ത് മാത്രം തൻ്റെ ചാനലിനെന്താണ് അതുകൊണ്ടുള്ള ലാഭം അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ആണ് മാധ്യമങ്ങൾ കൂടുതൽ ഇന്ന് അവരുടെ ജോലി ചെയ്യുന്നത് യഥാർത്ഥ മാധ്യമപ്രവർത്തനം ആണോ അത് എന്ന് ചിന്തിച്ചാൽ അല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും വളരെ അധികം വിഷമങ്ങൾ നമുക്ക് ഈ മാധ്യമങ്ങളിലൂടെ ഒരുപക്ഷേ സംഭവിക്കാറുമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുവാനും എന്നാലത് നേരെ ആക്കുവാനും അല്ലെങ്കിൽ അതിനെ നേട്ടം ഉണ്ടാക്കുവാനും മാധ്യമങ്ങൾക്ക് കഴിയാറുണ്ട് മാധ്യമങ്ങൾക്ക് മാത്രമേ ഒരു ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുവാനും അല്ലെങ്കിലൊരു മറ്റൊരു ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ അത്രയും പ്രശ്നമാക്കാതിരിക്കുവാനും കഴിയുന്നത് മാധ്യമങ്ങൾക്ക് മാത്രമാണ് മാധ്യമങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു നല്ല സമൂഹത്തെ കെട്ടി പടുക്കുവാൻ നമുക്ക് സാധിക്കും മാധ്യമങ്ങളിലൂടെ ഒരുപാട് അറിവുകൾ പ്രദാനം ചെയ്യുവാൻ കഴിയുന്നു എന്നാലൊരുപാട് തെറ്റിദ്ധാരണകൾ വളർത്തുവാനും മാധ്യമങ്ങൾക്ക് മാത്രമേ കഴിയൂ അതിനാൽ മാധ്യമങ്ങൾ ഒരിക്കലും ഒരു വിവരങ്ങളുടെ സ്വകാര്യതയും കാത്തുസൂക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻറെ അഭിപ്രായം ഇതിനോട് ഞാനെന്നും ഒരു അഭിപ്രായത്തോട് ഞാൻ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു